ചിത്രരചന പോലുള്ള കലകൾ കുട്ടികളിൽ ആരംഭിക്കാനുള്ള ശരിയായ പ്രായപരിധി ഒന്നുമില്ല അവർക്ക് വരയ്ക്കാൻ അവർ വരയ്ക്കാറായി അല്ലെങ്കിൽ അവർ വരയ്ക്കാൻ തുടങ്ങുന്നു എന്നു നമ്മൾ കണ്ട് കഴിയുമ്പോൾ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക അതായത് അവർക്ക് പെൻസിലുകൾ കളർ പെൻസിലുകൾ മേടിച്ച് കൊടുത്ത് പേപ്പറുകൾ വാങ്ങിക്കൊടുത്ത് പെയിൻ്റുകൾ അല്ലെങ്കിൽ കളർ ബുക്കുകളൊക്കെ മേടിച്ച് കൊടുത്തവരെ വരപ്പിച്ചും കളർ ചെയ്യിപ്പിച്ചും അവരെ അവരുടെ അവരുടെ ഉള്ളിലെ ചിത്രരചന പോലുള്ള കലകൾ വളർത്തി എടുത്തുകൊണ്ട് വരിക അങ്ങനെ ആണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്ത് ചിത്രരചന പോലുള്ള കലകൾ കുട്ടികളിൽ ആരംഭിക്കാൻ സാധിക്കൂ അവരെ വളരെ അധികം പ്രോത്സാഹിപ്പിച്ചവരെ അതായത് ചിത്രരചന പോലുള്ള കലകൾ അവരുടെ ഉള്ളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അവരെ അത് അത് തന്നെ പഠിക്കാൻ വിടുകയോ അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതീലുള്ള കുറേ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ ഉള്ളിലേക്ക് ചിത്രരചന എന്ന കലയെ കൊണ്ടുവരുക അങ്ങനെ അവരതിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെയൊരു കലയെ അങ്ങനെയാണ് കുട്ടികളിൽ കലയിലെ ചിത്രരചന എന്ന കലയെ ഊട്ടി ഉറപ്പിക്കുന്നത് ശരിയായ വയസ്സ് എന്നൊന്നും ഇല്ല അത് അവരുടെ അവർക്ക് എന്താ പറയുക വരയ്ക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ തുടങ്ങും ചിലവർ ചിലപ്പം മൂന്നാമത്തെ വയസ്സിൽ തുടങ്ങും കുട്ടികൾ ചിലവർ ആറാമത്തെ വയസ്സിലായിരിക്കും ചിലവർ അഞ്ചാമത്തെ വയസ്സിലായിരിക്കും അങ്ങനെ ഇന്ന അല്ല കുട്ടികൾ ഇന്ന പ്രായത്തിൽ തന്നെ വരയ്ക്കാൻ തുടങ്ങും എന്നില്ല പല കുട്ടികൾക്കും പല രീതിയാണ്